ആധുനികമായ ടെക്നോലജികളും മറ്റും ഇപ്പോൾ കായിക രംഗത്ത് വളരെയധികം സജീവമാണ് ഫുട് ബോൾ രംഗത്ത് തന്നെ ട്രെയിനിങിൻ്റെ സമയത്ത് നമ്മളിടുന്നൊരു ജാക്കറ്റ് പോലെത്തെ ഒരു സ്ലീവ് ഉണ്ട് അപ്പം അതിൻ്റെയുള്ളിലൊരു ചിപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രെനിങ്ങിൽ എങ്ങനെ എത്രത്തോളം കഠിനമായി പ്രാക്ടീസ് ചെയ്തു എത്ര ദൂരം ഓടി എത്ര മീറ്റർ ചാടി എത്ര സ്പ്രിൻറ്റ് ചെയ്ത് എത്ര ടോപ് സ്പീഡ് എത്തി എല്ലാം അതിൽ കാണാൻ പറ്റും അതുപോലെ തന്നെ എല്ലാവരും ബാറ്റിൻ്റെ ഉള്ളിൽ ചിപ്പ് വെക്കുക അതേപോലെ തന്നെ ബോളിൻ്റെ ഉള്ളിൽ ചിപ്പ് വെക്കുക എല്ലാം ആധുനിക കാര്യങ്ങളെല്ലാം ഇപ്പോൾ കായികരംഗത്തും ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ വളരെയധികം നല്ല റിസൾട്ടുകളും പറ്റുന്നുണ്ട് ഫുട് ബോൾ രംഗത്ത് വി എ ആർ സംവിധാനം വന്നതും ഗോൾ ലൈൻ ടെക്നോളജി വന്നതും അതുപോലെതന്നെ ക്രിക്കറ്റ് സാ ക്രിക്കറ്റ് കായി ക്രിക്കറ്റ് ക്രിക്കറ്റ് ടൂർണമെൻറ്റുകളെയെല്ലാം സ്റ്റമ്പിൻ്റെയുള്ളിൽ ചിപ്പ് വെച്ച് ഔട്ട് എന്നോ നോട്ട് ഔട്ട് ആണോ എന്നു നോക്കുന്നതും അതേപോലെത്തന്നെ എൽ ബി ഡബ്ലിയൂ ആർ ബി ഡബ്ലിയൂ എല്ലാം കാര്യങ്ങളും നോക്കുന്നതും ആധുനിക സംവിധാനങ്ങൾ കൊണ്ടു തന്നെയാണ് അതേപോലെ തന്നെ സ്കാനറുകൾ വെച്ച് നമ്മളുടെ പിച്ച് മൊത്തവും നോക്കിയിട്ട് എവിടെയൊക്കെ ബോൾ പിച്ച് ചെയുന്നു ഇല്ലേ പിച്ച് ചെയാതിരിക്കുന്നു അതും എല്ലാം നോക്കുന്നതും സാങ്കേതികവിദ്യ ഉള്ളതു കൊണ്ടു തന്നെയാണ് അതേപോലെ തന്നെ നമ്മളുടെ നമ്മളുടെ ശരീരത്തിൻ്റെ ഹി താപനിലയും എത്രത്തോളം ഒരു കളിക്കാരൻ ഓടുന്നുണ്ട് ചാടുന്നുണ്ട് എല്ലാം അപ്പോൾത്തന്നെ മീഡിയയിൽ വരികയും ലൈവ് ടെലികാസ്റ്റിൽ എഴുതികാണിക്കുകയും ചെയുന്നത് എല്ലാം നമ്മളുടെ സാങ്കേതികവിദ്യയുടെ വളർച്ചകൊണ്ടുതന്നെയാണ്

ഡെഫിനിഷൻ ക്യാമറകൾ അംഗിളുകൾ എല്ലാം ഇപ്പോൾ ഫുട് ബോൾ കളികളുടെ ഇടയിൽ വെക്കുന്നുണ്ട് അതിനു അതുകൊണ്ടുതന്നെയൊരു ഒരു കളിക്കാരന്റെ മാക്സിമം സ്പീഡ് മിനിമം സ്പീഡ് ഇൻവോൾവ്മെൻറ്റ് ഒക്കെ നമുക്കറിയാൻ പറ്റും പിച്ചിൻ്റെ മൊത്തവും ഓവർ വ്യൂ അപ്പ്ലോഡ് ചെയ്യുകയും അതിനുശേഷം ഓരോ പ്ലേയറുടെയും കയ്യിൽ വെച്ചിരിക്കുന്ന ചിപ്പിൽ നിന്നും ഡാറ്റാ എടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ പിച്ചിൻ്റെ എവിടെയൊക്കെ അയാൾ ഓടുകയുണ്ട് എന്നുള്ള ഹീറ്റ് മാപ്പ് സഹിതം നമുക്ക് കിട്ടുന്നതാണ് ഇതെല്ലാം കൊണ്ടു തന്നെയാണ് നമ്മുടെ കായിക രംഗത്ത് ഇത്രയും അഡ്വാൻസ് ആയിരിക്കുന്നത് ഓരോ ചെറിയ ഡീറ്റൈൽ വരെ നമുക്ക് ലൈവായി കാളികാണുമ്പോൾ അഥവാ സ്റ്റേഡിയത്തിലിരുന്ന് കൊണ്ടുതന്നെ കളി കാണുമ്പോൾ അപ്പോൾത്തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് ഇതെല്ലാം സാങ്കേതികവിദ്യയുടെ വളർച്ച കൊണ്ട് തന്നെയാണ്